ഇന്ത്യയിലെ ചെറുപ്പക്കാർ ആൺകുട്ടികൾ കൂടുതൽ കഷ്ടപ്പെടാതെ ഏതൊക്കെ ജോലികൾ ചെയ്യാമോ അങ്ങനെ വരുമാനം ഉണ്ടാക്കാമോ എന്നൊക്കെയാണ് നോക്കുന്നത് നമ്മുടെ പെൺകുട്ടികൾ നന്നായി പഠിച്ച് നല്ല ജോലി നേടി നല്ലയൊരു സാമ്പത്തിക ഭദ്രത എത്തുവാനായിട്ട് ശ്രമിക്കുന്നു നമ്മുടെ ആൺകുട്ടികൾ അവർ പഠനത്തിൽ ഒത്തിരി ശ്രദ്ധയൊന്നും വരുത്താതെ അത്യാവശ്യം പഠനം കഴിഞ്ഞ് കൂടുതൽ കഷ്ടപ്പെടാതെ എങ്ങനെ പണം സമാഹരിക്കാം എന്ന് ശ്രദ്ധിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് ഇപ്പോൾ നമ്മൾ കൂടുതലായി ശ്രദ്ധിച്ചാൽ ഒത്തിരി ചെറുപ്പക്കാർ യൂട്യൂബർമാരായി മാറുന്ന ഒരു കാലമാണ് അതിന് അതികം പഠിക്കേണ്ട അതുകൊണ്ടുതന്നെ രാഷ്ട്രീയക്കാരാവുന്ന സമയവും കാലങ്ങളും നടന്നു കൊണ്ടിരിക്കുന്നു അവർക്ക് എങ്ങനെ സമ്പാദിക്കണം എങ്ങനെയും സമ്പാദിക്കണം എന്നു മാത്രമേ ചിന്തയുള്ളു അവർക്ക് ലക്ഷ്യം മാത്രമേ ഉള്ളൂ മാർഗ്ഗമേതായാലും കുഴപ്പമില്ലായെന്ന് ചിന്തിക്കുന്ന കുറേ യുവജനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് ഇന്ന് പത്രമാധ്യമങ്ങളിൽ എപ്പോൾ നോക്കിയാലും മയക്കുമരുന്ന് പലതരത്തിലുള്ള മയക്കുമരുന്നുകൾ കച്ചവടം ചെയ്ത് സമ്പാദിക്കുന്നു എങ്ങനെ സമ്പാദിക്കണം ആ കച്ചവടം നടത്തി ആർക്കൊക്കെ എന്തെല്ലാം ദോഷങ്ങൾ സംഭവിച്ചാലും തങ്ങൾക്ക് സാധിക്കുന്ന രീതിയിലെല്ലാം പണമുണ്ടാക്ക്കാക്കുക എന്നൊരു ചിന്തയോടുകൂടി വളരെ പരുഷമായ രീതിയിൽ സമ്പാദിക്കുവാൻ ശ്രദ്ധിക്കുന്ന ഒത്തിരി യുവജനങ്ങളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എങ്കിൽ നമ്മുടെ പെൺകുട്ടികൾ നന്നായി പഠിച്ച് നേഴ്സിംങ് അതുപോലെ നല്ല ജോലികളിലേക്ക് കടന്നുപോയി വിദേശ രാജ്യങ്ങളിലേക്ക് പോയി സമ്പാദിക്കുകയും അത് തങ്ങളുടെ കുടുംബത്തിന് ഒരത്താണി ആവുകയും ചെയ്യാറുണ്ട് അവരുടെ ജീവിതം എത്ര എത്ര കാലം കഴിഞ്ഞാലും നമ്മുടെ കുട്ടികൾ നമുക്ക് അനുഗ്രഹപ്രദമായി മാറുകയാണ് ചെയ്യുന്നത് നമ്മുടെ കുട്ടികൾ എത്ര നന്നായിട്ട് പഠിപ്പിക്കാമോ അത്ര നന്നായിട്ട് പഠിപ്പിക്കണമെന്നാണ് നമ്മുടെ മാതാപിതാക്കൾ ശ്രദ്ധിക്കുന്നത് എന്നാൽ നമ്മുടെ കുട്ടികൾ പ്ലസ്ടു വരെ നന്നായി പഠിച്ചു പോകും അത് കഴിഞ്ഞ് അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവർ മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത് എന്തായാലും നമ്മൾ സമയം കൊടുത്തുകൊണ്ട് കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു കാലം വരണമെന്നാണ് പറയാൻ പറ്റുന്നത്